നീന്തൽ നമ്മൾ നടത്തുമ്പോഴത്തേക്ക് ദൂരെയുള്ള സ്ഥലങ്ങളിലേക്ക് പോകുവാണെങ്കിൽ വിവിധങ്ങളായ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം ഒന്ന് നമ്മൾ നീന്തലിനുപയോഗിക്കുന്ന മാർഗ്ഗങ്ങൾ അതായത് ജാക്കറ്റ് പോലെയുള്ള അല്ലെങ്കിൽ റിങ്ങ് ട്യൂബുകൾ പോലെയുള്ള ബോട്ടിങ്ങ് പോലെയുള്ള സൗകര്യങ്ങൾ നമ്മൾ ക്രമീകരിക്കണം മറ്റൊന്ന് നമുക്ക് പോകുന്ന വഴിയിലേക്കുള്ള ഭക്ഷണങ്ങൾ പിന്നെ നമ്മുടെ ഈ യാത്രാ സൗകര്യങ്ങൾ ഈ യാത്രയ്ക്ക് ഉപയോഗിക്കുന്ന വസ്ത്ര ദാന വസ്ത്ര സംവിധാനങ്ങൾ അതുപോലെ തന്നെ ഭാരം അധികമില്ലാത്ത വസ്ത്രധാരണങ്ങൾ നല്ല സ് ഇത് വസ്ത്രധാരണം പിന്നെ വെള്ളത്തിൽ നമുക്ക് ഒരു അപകടം നേരിടുമ്പോൾ പെട്ടെന്ന് രക്ഷപ്പെടാൻ പറ്റുന്ന മാർഗ്ഗങ്ങൾ ഇനിയൊരു ഫസ് ഒരു പ്രഥമ ആ ഒരു പെട്ടെന്ന് എന്തെങ്കിലും സാധിച്ചാൽ കരയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പ്രഥമമായ ഒരു കരുതൽ രക്ഷാ നടപടികൾ ചെയ്യുവാനുള്ള സജ്ജീകരണങ്ങൾ ഇവയെല്ലാം നമ്മൾ ഇതിനുള്ള സുരക്ഷിതത്വത്തിനുള്ള ആവശ്യങ്ങളാണ് വേറെ ഒന്ന് നമുക്ക് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൂടെ നമ്മൾ സഞ്ച യാത്രയിൽ പോകുമ്പോൾ വലിയ വലിയ ജലാശയങ്ങളിലൂടെ യാത്രകൾ ചെയ്യുമ്പോൾ നമുക്ക് കാണാം വലിയ വഴുവഴുപ്പുള്ള പാറകളും പായൽ ഒക്കെ ഇവയെ തടസ്സങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഈ ചെറിയ ചെറിയ കല്ലുകളിൽ കയറിയാലും അപകടം ഉണ്ടാകാം കാൽ നമുക്ക് വഴുതി പോകാം മറ്റൊന്ന് നമ്മൾ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത് നമ്മുടെ ഗതിയെ തിരിച്ച് വിടുന്നതായിരിക്കും അതല്ലെങ്കിൽ നമുക്ക് നന്നായ രീതിയിൽ പോകുവാൻ പറ്റാതെ വരും പിന്നെ മരണം നമുക്ക് ചിലപ്പം മുമ്പിലായിരിക്കും അതുപോലെ തന്നെ പിന്നെ നന്നായി പോകുന്ന അതിൽ പായൽ നമ്മെ ചിലപ്പം നമ്മുടെ പിടി നിയന്ത്രണം വിട്ടുപോകാൻ ഇടയുണ്ട് അതുപോലെ തന്നെ ഒഴുക്കും അതുപോലെ തന്നെയാണ് നല്ലൊരു നീന്തി പോവുന്ന ആളിന് ഒഴുക്ക് പ്രതികൂലമായ അവസ്ഥയായിരിക്കും സൃഷ്ടിച്ച് കൊടുക്കുന്നത് പായലെന്ന് പറയുമ്പോൾ നമ്മുടെ നിയന്ത്രണത്തിനും അപ്പുറത്തായിരിക്കും അതുപോലെ തന്നെ വഴുവഴുപ്പുള്ള പാറകൾ നമുക്ക് അപകടങ്ങളെ കൂടുതൽ വരുത്തി വയ്ക്കാനുള്ള ഒരു അവസ്ഥയായിരിക്കും വേ ഇതുപോലെയുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ച് പോയില്ലെങ്കിൽ നമുക്ക് മാനസികമായിട്ട് ഒത്തിരി പിരിമുറുക്കങ്ങൾ ഉണ്ടാവും നന്നായി സഞ്ചരിച്ച് പോ നീ നമ്മുടെ സഞ്ചാരമാർഗ്ഗങ്ങൾ നന്നായി രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുവാൻ നമുക്ക് സാധിക്കാതെ വരും അത് നമ്മുടെ ശ്രദ്ധയെ തന്നെ പല വിചാരത്തോടുകൂടി വ്യതിചലിപ്പിക്കുന്നതായിട്ട് മാറും പിന്നെ നമുക്ക് മറ്റൊന്ന് ഇത് ചെറിയ നിസ്സാരമായിട്ടൊന്നും കാണുവാനും സാധിക്കില്ല നിസ്സാരങ്ങൾക്ക് നിസ്സാരമായ കാര്യങ്ങളാണ് വലിയ നാശം വരുത്തി വയ്ക്കുവാനിത് സഹായിക്കുന്നത് അത്തരം കാ നമ്മൾ പോകുമ്പം ഇവയെല്ലാം നമ്മുടെ തടസ്സങ്ങളാണ് ആ തടസ്സങ്ങളെ ഒഴിവാക്കി നല്ല ഒരു സഞ്ചാരത്തിന് പോവാനായിട്ട് സാധിക്കണം ഇതാണ്